ഹലോ ഹലോ ആ പീഡിയാട്രീഷൻ സെൻ്ററല്ലെ ഹലോ കേൾക്കുന്നുണ്ടോ ആ കുട്ടി ജനിച്ചിട്ട് കുറച്ചായിട്ടുണ്ടായിരുന്നേ അപ്പോൾ എങ്ങനെയാണതിൻ്റെ ഫുഡ് കാര്യങ്ങളൊക്കെ കൊടുക്കേണ്ടത് ഹെൽത്തൊക്കെ നോക്കിയിട്ട്

ഓക്കെ ഫ്രൂട്ട്സ് അയ്റ്റംസ് ഒക്കെ കൊടുക്കാനൊക്കെ പറ്റുമോ ആ ഓക്കെ

ആ ഓക്കെ ഓക്കെ പിന്നെ ഇളം വെയിൽ അങ്ങനെ എന്തെങ്കിലും കൊള്ളിക്കുന്ന അങ്ങനെത്തെയൊക്കെ ആ ഓക്കെ ആ പിന്നെ കുളിപ്പിക്കുന്ന ഇപ്പത്തെ തണുപ്പിൽ അങ്ങനെയൊക്കെ ആ ഓക്കെ ഓക്കെ പിന്നെ വേറെ വേറെ ഫുഡ് ഐറ്റംസുകളൊന്നും കൊടുക്കാൻ പറ്റില്ല ആ അങ്ങനെത്തെ കൊടുക്കാൻ പറ്റുമോ ആ ഓക്കെ ഓക്കെ

ആ ഓക്കെ ഓക്കെ താങ്ക് യൂ